കല്ല്യാണത്തിനു സാധാരണ നമ്മൾ ഇച്ചിരി ബാസ്സ് ടൈപ്പൊക്കെയാണല്ലേ നോക്കാറ് അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് സോങ്ങ് പറയുകയാണെങ്കിൽ വണ്ടർഫുൾ നൈറ്റ് അതുപോലെ തന്നെ മേരി മി ഓൾ ഓഫ് ദി സ്റ്റാർസ് അങ്ങനെ കുറച്ചു സോങ്ങ്സ് മലയാളം വരുവാണേ കാലാദുഷ്മാം പിന്നെ തിങ്കളേ പൂത്തിങ്കളെ അങ്ങനെ കുറെ എന്താ പറയുക നല്ല കേൾക്കുന്നവർക്ക് ഇരുന്ന് അവർക്കൊരു വൈബടിക്കാൻ തോന്നണം കളിക്കുന്നവർക്കു നല്ല എനർജിയും അതുപോലെ തന്നെ അതു കേൾക്കുന്നവർക്കും നല്ലൊരു റിഫ്രഷിങ് ഫീൽ അല്ലെങ്കിൽ എനർജി കൊടുക്കുന്നതു പോലെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതു സാധാരണയായിട്ടു നോക്കുന്നത് ഇപ്പം അതിപ്പം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ സാധാരണ കണ്ടു പിടിക്കാറ് ഇങ്ങനെ കല്ല്യാണത്തിനിടെ പറ്റുന്ന സോങ്ങ്സൊക്കെ തിങ്കളേ പൂത്തിങ്കളെ കാലാ ചഷ്മാ ചിക്കിനി ചമ്മേലി ചെക്കനും പെണ്ണും പിന്നെ ഹണിബീയിലെ ഒരു മാരേജ് സോങ്ങു കൊണ്ട് അത് അങ്ങനെയൊക്കെ